ഞാന് ഇപ്പോൾ ഇവിടുന്ന് കുറച്ചു സാധനങ്ങളൊക്കെ ഓഡറെയ്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ സംഭവം എങ്ങനാണ് വച്ചു കഴിഞ്ഞാല് സംഭവം ഞാന് കുറച്ച് ബിരിയാണിയും പിന്നെ പൊറോട്ടയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരുന്നു ഓഡറ് ചെയ്തിട്ടുണ്ടാരുന്നേ പക്ഷെ എനിക്ക് വേറെന്തൊക്കെയോ ആണ് സാധനങ്ങളൊക്കെ വന്നിരിക്കുന്നത് അപ്പം അത് തെറ്റായ ഒരു ഓഡറായിട്ടാണ് എനിക്ക് വന്നേക്കുന്നത് ഞാനീ സാധനങ്ങളൊന്നും അങ്ങനെ ഓഡറ് ചെയ്യാത്തതാണ് അതെ അതെ അതെ ഞാൻ എനിക്ക് തെറ്റായിട്ടുള്ളൊരു സാധനായിരുന്നു വന്നത് എന്താ സംഭവമെന്ന് എനിക്ക് അറിയില്ല നിങ്ങളവിടന്ന് എന്തെക്കെയോ പ്രശ്ങ്ങളൊക്കെ ആയിട്ടാണെന്ന് തോന്നുന്നു വന്നത് സംഭവം ഡെലിവറി ബോയി എൻ്റെടുത്തു നിങ്ങള് പാക്കെയ്തൊക്കെ കറക്ട് സെറ്റപ്പായിട്ടൊക്കേണ് പാക്കേയ്തത് പക്ഷേ ഞാനിതൊന്നുമല്ല ഓഡറെയ്തത് എനിക്കിത് ഫുള്ള് വെജിറ്റബിളായിട്ടാണ് വന്നത് ഞാന് ഞാൻ ഓഡർ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബിരിയാണിയൊക്കെയാണ് ഓഡറെയ്തത് അല്ല ഞാൻ ഓൺലൈൻ ആയിട്ട് പേയ്മെന്റ് ചെയ്തതാണ് നിങ്ങളുടെ സൈറ്റിലാണ് ഞാൻ ഓഡറു ചെയ്തത് ഓഡറ് ചെയ്ത സാധനം ഞാന് ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞു തരാം വേണമെങ്കില് നിങ്ങളൊന്ന് നോട്ട് ചെയ്തു വച്ചോളു അല്ല ഇനി എനിക്ക് ആവശ്യമില്ല കാരണമെന്ന് വച്ചു കഴിഞ്ഞാൽ ഞാന് ഒന്ന് ഓഡറു ചെയ്തു പക്ഷേ നിങ്ങള് എനിക്ക് തെറ്റായിട്ടാണ് അയച്ചു തന്നത് അതെ അതെ അതെ അതെ ആ നിങ്ങളെനിക്ക് തെറ്റായിട്ടാണ് അയച്ചു തന്നത് അത് പറയാൻ വേണ്ടിയാണ് വിളിച്ചതെന്ന് തോന്നുന്നു എനിക്ക് പ്രശ്നമില്ല കുഴപ്പമില്ല ബാക്കി എമൗണ്ട് എനിക്ക് അക്കോണ്ടിലേക്ക് ഇട്ടു തന്നാൽ മതി ഓക്കെ ഓക്കെ